ഈയടുത്ത വർഷങ്ങളായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലൊക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെയധികം വികസിക്കുകയും വളരെയധികം വളർച്ച പ്രാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കാരണമായിട്ടുള്ള പ്രധാന വ്യവസായങ്ങളെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ചെറുകിട വൻകിട വ്യവസായങ്ങൾ പിന്നതുപോലെത്തന്നെ ഇടത്തരം സംരംഭങ്ങൾ വളം കെമിക്കൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കോട്ടേജ് റീട്ടെയിൽ തുണിത്തരങ്ങൾ ഫാർമ്മസ്യൂട്ടിക്കൽ നിർമ്മാണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി വ്യവസായങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം വികാസം വികസനം നൽകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡിജിറ്റൽ പേമെന്റ് ഒക്കെ ഇള്ളതുകൊണ്ട് തന്നെ അത് സാമ്പത്തിക മേഖലയെ വളരെയധികം മുന്നോട്ട് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് ഈ ബാങ്കിങ്ങ് അതുപോലെത്തന്നെ ഡിജിറ്റൽ പേമന്റ് ഒക്കെ സഹായിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇപ്പം ഉദാഹരണമായിട്ട് ഈ നമ്മളെ ഓൺലൈൻ ഷോപ്പിങ് ഒക്കെ നടത്തുന്നതിലൂടെ അതായത് റീട്ടെയ്ൽ തുണിത്തരങ്ങൾ അതുപോലെത്തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ആൾക്കാർക്കൊക്കെ പുറത്തിറങ്ങാനുള്ള മടി കാരണം എല്ലാവരും ഓൺലൈൻ ആയിട്ട് ഭക്ഷണമാണെങ്കിലും അതുപോലെത്തന്നെ മറ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിലും അവർ ഓൺലൈനിന് ആയിട്ട് വീടുകളിലേക്ക് വരുത്തുകയാണ് അപ്പോൾ അവർ അതിൻ്റെ പൈസ കൊടുക്കുന്നതും ഒക്കെ ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് ആവശ്യങ്ങൾ കൂടി അപ്പോൾ അത് വഴി ആവശ്യങ്ങൾ കൂടി ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വാങ്ങുകയും പിന്നെ വീട്ടിൽതന്നെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള പേമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഗെവൺമെൻറ്റിന് വളരെയധികം അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം വികാസം പ്രാപിച്ചു